ഒൻപത് ലക്ഷത്തി തൊന്നൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊന്നൂറ്റൊൻപത് എട്ട് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തി ആറ് എഴുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആറ് ലക്ഷത്തി അറുപത്താറായിരത്തി അറുന്നൂറ്ററുപത്താറ് അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റൻപത്തഞ്ച് നാല് ലക്ഷത്തി നാൽപ്പത്നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല്